ഇതൊക്കെ പഠിപ്പിക്കാനാണ് ഗവണ്മെന്റ് സ്കൂളുകളിൽ ഇപ്പോൾ ജോഗ്രഫി എന്ന ഒരു സബ്ജെക്റ്റുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ജോഗ്രഫിയെ സംബന്ധിച്ച് കൃഷി വ്യവസായം ചെറുകിട ബിസിനസുകളെ പറ്റിയൊക്കെ ഈ ജോഗ്രഫിയിൽ നന്നായിട്ട് പറയുന്നുണ്ട് അത് ജോഗ്രഫി എന്നു പറഞ്ഞാല് അടിസ്ഥാന ശാസ്തം അപ്പോള് അടിസ്ഥാന ശാസ്ത്രത്തിൽ പറയുന്നതാണ് ഇതൊക്കെ ഇപ്പോള് ഇതൊക്കെ ഗവണ്മെന്റ് സ്കൂളുകളിൽ വളരെ നന്നായി പഠിപ്പിച്ചിരുന്നു മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും ഇത് രണ്ടിലും ഉണ്ട് അപ്പോള് കുട്ടികളെക്കുറിച്ച് ഇത് കുട്ടികൾക്കിതിൽ വളരെ ഇഷ്ടപ്പെട്ടൊരു ജോലി അപ്പോൾ ഇതിന്റെ ഇപ്പോള് കൃഷിക്കാരനെ സംബന്ധിച്ചാണെങ്കില് ഇതിന്റെ വളത്തേക്കുറിച്ചും ഒക്കെ ജോഗ്രഫിയിൽ പറയുന്നുണ്ട് പിന്നെ മരപ്പണിക്കാരെ കുറിച്ചൊക്കെയാണെങ്കിൽ നല്ല മരം അതിന്റെയിത് അതിതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെയുള്ളത് കോഴി വളർത്തൽ ആർക്കും പറഞ്ഞ് കൊടുക്കണ്ട ഒരു കാര്യമല്ല കോഴിക്കാവശ്യമായ ഒരു കുട്ടിയെ നോക്കുന്നതുപോലെ കോഴിയെ ആവശ്യമായ കോഴികൾക്കാവശ്യമായ ഭക്ഷണം അതിനാവശ്യമായ മരുന്ന് അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ കോഴി വളർത്തലും പശു വളർത്തലും അങ്ങ് അത് തുടർന്നുപോകും പിന്നെ അറ്റകുറ്റ പണികള് അതിനെ കുറിച്ച് ജോഗ്രഫിയിൽ നന്നായിട്ട് പറയുന്നുണ്ട് അതായത് കൈ തൊഴിലുകൾ കൈ തൊഴിലുകളെ കുറിച്ച് നന്നായിട്ട് ജോഗ്രഫിയിൽ പറയുന്നുണ്ട് ചെറുകിട ബിസിനസ്സുകളെക്കുറിച്ച് പറയണമെങ്കിൽ പലവർക്കും അത് പല മെന്റാലിറ്റിയാണ് ബിസിനസ്സുകളെന്നു പറഞ്ഞാൽ എല്ലാവര്ക്കും ഓരോരുത്തര്ക്കും ഓരോ രീതിക്കാണവര് ചിന്തിക്കുന്നത് അപ്പോള് ചിന്തിക്കുന്ന രീതിക്ക് നല്ല നല്ല ബിസിനസ്സുകള് മൈൻഡുകള് പറഞ്ഞ് തരുന്നുണ്ട് പത്തിലെ ജോഗ്രഫി പിന്നെ അതിനുശേഷം ഉള്ള ചെറുകിട ബിസിനസ്സെന്ന് പറഞ്ഞാല് സോപ്പ് നിർമ്മാണം അല്ലെങ്കിൽ സോപ്പ് നിർമാണം കോഴി വളർത്തൽ അതൊക്കെ ചെറുകിട ബിസിനസ്സുകളാണ് പിന്നെ ഇവരെ പഠിപ്പിക്കാനാണ് ഈ ജോഗ്രഫിയാണെങ്കിലും സബ്ജക്ട് പിന്നല്ലാണ്ട് ഇവർക്കിതിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ലൈബ്രറികളിൽ പോയാൽ പല പല പുസ്തകങ്ങള് ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതികൾക്ക് ഇവർക്ക് പഠിക്കണമെന്നാഗ്രഹമാണെങ്കിൽ അവർക്കത് പല പല ലൈബ്രറികളിൽ പോയി അത് അതിന്റെ ബുക്കുകൾ കിട്ടും പിന്നല്ലാണ്ട് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് നല്ലൊരു പുസ്തകങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി നന്നായിട്ട് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ ലഭിക്കും അല്ലാണ്ട് ബിസിനസ്സുകളെ പറ്റിയൊക്കെ ജോഗ്രഫിയിൽ പറയുന്നുണ്ട്